ഹലൊ കോണ്ടൂർ റിസെപ്ഷൻ സെൻറ്റർ ആണോ ഞാൻ റിയയാണ് വിളിക്കുന്നത് ഞാൻ എറണാകുളത്തേക്ക് ഞങ്ങൾക്കൊരു പിന്നെ ബർത്ത്ഡേ പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നെ അവിടെ അന്നേരം അവിടെ വേറെ വല്ലതും പരിപാടി ഏറ്റിട്ടുണ്ടോ ആ അത് ഞങ്ങൾക്ക് നാളെയാണെ അത് പറഞ്ഞിരിക്കുന്നത് കുഴപ്പമില്ലല്ലോ അതിന്റെ എല്ലാം മ് മ് അതൊന്ന് അറിയാൻ വേണ്ടി ആയിരുന്നെ ബർത്ത്ഡേ പാർട്ടി ഒരൂ ആറുമണിക്കാണ് പറഞ്ഞിരിക്കുന്നത് വൈകിട്ടത്തേക്ക് ആ ഒരു നൂറ് പേരുടെ പരിപാടി അ അപ്പം ചെറുതായി ഇതിൽ ഒത്തിരി വലിയ ഇതല്ല എന്നാലും ചെറിയ രീതീയിൽ ആ ഉണ്ട് അപ്പം അതിന് ഒക്കെക്കൂടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് മ് അങ്ങനെ മ് മൈക്കിന്റെ അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ടെന്ന് ആ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ വേറെ അത് പിള്ളേർ പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ട് പാട്ടും ഡാൻസും ഒക്കെ ഒണ്ട് പിള്ളാരൊക്കെ ഉണ്ട് അതിന്റെ നമ്മുടെ ആ നമ്മുടെ വീട്ടിലെ പിള്ളർ നമ്മുടെ വീട്ടിലെ പിള്ളേരൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട് ഉണ്ട് പിള്ളേരുണ്ട് വേറെ ആ ഡാൻസും പാട്ടുമൊക്കെയാണ് പിന്നെ ഫുഡ്ഡ് ഫുഡ്ഡ് നല്ലതായിരിക്കണം കേട്ടോ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ആ കേക്ക് ആണെങ്കിലും നല്ല രീതിയിലുള്ളത് ആയിരിക്കണേ കേക്കും കൊച്ചിന്റെ പേരെഴുതി വേണം കൊച്ചിന് ഒരു വയസ്സിന്റെ മ് ഇത് ആ ന് കൊച്ചിന്റെ പേര് നിക്കി നിക്കി ആ ബ്ലാക്ക് ഫോറെസ്റ്റ് ബ്ലാക്ക് ഫോറെസ്റ്റ് ബ്ലാക്ക് ഫോറെസ്റ്റ് മ് മ് അത് വൈറ്റ് വൈറ്റ് അ മ് എന്തോ ആ അത് ഒരു കിലോ രണ്ട് കിലോടെ അ ആ ശരി എന്നാൽ ശരി എന്നാൽ